ഹലോ ഇത് കസ്റ്റം സർവീസല്ലേ മൊബൈല്റെ ഞാൻ ഈ അടുത്ത് ഒരു എൻ്റെ സിമ്മിൽ എൻ്റെ സിമ്മ് ആയിട്ടുള്ള എൺപത്തി ഒൻപത് നാൽപ്പത്തി മൂന്ന് മുപ്പത്തി ഒൻപത് അഞ്ച് ഏഴ് ആറ് ഒന്ന് എന്നുള്ള നമ്പിൽ നമ്പറിൽ ഞാൻ ഈ അടുത്ത് എന്ത് ഡാറ്റ കയറ്റിയിരുന്നു പക്ഷേ അതിൽ എസ് എം എസ് ഒന്നും കിട്ടുന്നില്ല എസ് എം എസിന്റെ വളരെ വലിയ എന്ത് ഒരു കുറവ് തന്നെ കാണുന്നുണ്ട് ചില എസ് എം എസുകളൊക്കെ ആനാവശ്യത്തിലേറെ വരുന്നുണ്ട് എന്നാൽ ആവശ്യമുള്ള കുറേ എസ് എം എസ്സോും വരുന്നില്ല പക്ഷേ അതിലേറെ എന്ത് എൻ്റെ ഞാൻ ഉപയോഗിക്കുന്ന ഡാറ്റ വളരെ ലോ പെർഫോമൻസിനാണ് ഇപ്പം നിൽക്കുന്നത് ഒരു നല്ല രൂപത്തിലുള്ള സ്പീഡ് ഒന്നും കിട്ടുന്നില്ല വളരെ എന്ത് ഒരു ജീ ബിയാണ് ഒരു ദിവസത്തിന് ഞാൻ കയറ്റിയത് പക്ഷേ എന്താണെന്ന് അറിയില്ല ഒരു ജീ ബിയന്നും ഒരു ദിവസമൊക്കെ കിട്ടുന്നില്ല ഒരു ജി ബി കൂടിപ്പോയാൽ ചിലപ്പം എങ്കിൽ കുറച്ചാകുമ്പോൾ തന്നെ അതിന് നോട്ടിഫിക്കേഷൻ വരും പെട്ടെന്ന് ഡാറ്റ തീരുന്നുണ്ട് പക്ഷേ ഇതിന് മുമ്പത്ത പ്രാവശ്യമൊക്കെ കയറ്റുമ്പോൾ ഇതുപോലെ ആയിരുന്നില്ല വളരെ ഒന്നും കൂടെ കൂടുതൽ എന്ത് നെറ്റ് കയറ്റിയിരുന്നു നമ്മൾ ഇപ്പം ഉപയോഗിക്കുന്ന സിമ്മ് ആയിട്ടുള്ള വോഡഫോൺ വി ഐ സിമ്മ് നമ്മൾ കയറ്റിയത് തന്നെ അത്രയ്ക്ക് എന്ത് നല്ല രൂപത്തിലാണല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷേ ഈ അടുത്തുള്ള പെർഫോമൻസ് വളരെ മോശമാണ് പോരാത്തതിനത് പല സമയത്തും നെറ്റ് കിട്ടുന്നില്ല ഡാറ്റാ റോമിങ്ങിലൂടെ എന്ത് പല സമയത്ത് നെറ്റ് കിട്ടാതെ പോകുന്നുണ്ട് നെറ്റ് പെട്ടന്ന് സ്ലോ ആകുകയും പെട്ടെന്ന് എന്ത് നെറ്റ് കിട്ടാത്തൊരു അവസ്ഥ പല സമയത്തൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇതിന് മുൻപുള്ള ഒരു അവസ്ഥ അല്ല അപ്പോഴത് അപ്പോൾ നിങ്ങൾ എന്താക്കണം ഇതിനെ ഒരു പെട്ടെന്ന് എന്താക്കണം ഒരു തീരുമാനം കാണണം കാരണം അത് എൻ്റെ നിലവിൽ എന്ത് ഡാറ്റ അങ്ങനെ ഓവർ ഉപയോഗിക്കാതെ പോലും പക്ഷേ നല്ല ഡാറ്റ പോയിരിക്കുന്നതാണ് കാണിക്കുന്നത് അപ്പം നിങ്ങൾ എന്താക്കണം ഒന്ന് നെറ്റ് എത്ര കഴിഞ്ഞെന്നും എന്തുകൊണ്ടാണ് എന്നല്ല നിങ്ങൾ എന്തായാലും ഒന്ന് പരിശോധിക്കണം താങ്ക് യൂ താങ്ക് യൂ സാർ